ഹലോ ആ ആ എനിക്ക് ഒരു വീട് സ്ഥലം കൂടെ വേണാമായിരുന്നു അതിന് നാ വിളിച്ചത്

ആ ആലപ്പുഴ ജില്ലയിൽ തന്നെ സിറ്റി ഭാഗത്തായിട്ട് ഞാൻ ഇച്ചിരി അകത്തോട്ട് ആ ഹലോ ആ ആ ഞാൻ ആകത്തോട്ട് അത ഹ്മ് ആ പത്ത് സെൻറ് എങ്ങനെയാണ് വില ഒരു സെൻ്റിന് അവിടെ ആണല്ലേ ആ ആ

ആ ആ മതിയേ ആ മൂന്ന് ബെഡ്റൂം മതി ആ അ അത് തന്നെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉണ്ടല്ലേ

ആ ആ കുഴപ്പമില്ല

ആ അതാ ആ അടുത്ത് ആ ആ ഇല്ല

ആ ആ ഇജിരി ആ ഇച്ചിരി ഒന്ന് കുറയുമോ ആ ശരി ശരി ആ ആ ആ നോക്കാം നോക്കാം ഇറങ്ങാം ഓ ശരി ആ ആ നല്ലത് ആ ആ ശരി ശരി ആ ഒക്കുകയാണെങ്കിൽ ആണേ എന്ന് ഒന്ന് വിളിക്ക് ആ ശരി ശരി ഓകെ ഓകെ ഉം ശരി അ പറ